സ്വിഗ്ഗി ആപ്പ് ഓപ്പൺ ചെയ്യുന്നു ഹോട്ടൽ തിരഞ്ഞെടുക്കുന്നു അതിലേ ഓഡറുകൾ നോക്കുന്നു ഓഡറുകൾ നോക്കുമ്പോൾ ചിക്കൻ ബട്ടർ ചിക്കൻ ചിക്കനിലെ കുറേ വെറൈറ്റീസ് കാണുന്നു അതിലിപ്പോൾ ഇഷ്ടപ്പെട്ട ചിക്കൻ ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും ഞാൻ ഓഡർ ചെയ്യാൻ പോവുകയാണ് പക്ഷെ അവിടെ ഓഡർ കൂപ്പണൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ ഞാനത് എടുക്കില്ല ഞാൻ മറ്റൊരു ഹോട്ടലിലേക്ക് പോകുന്നു അക്ഷയ അക്ഷയയിലേക്കു പോകുമ്പോൾ അവിടെ അറുപത് ശതമാനം ഓഫറുണ്ട് പക്ഷെ തൊട്ടപ്പുറത്ത് തൊട്ടടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ അറേബ്യൻ ഗ്രില്ലും കുക്ക് ഡോറും എൺപത് ശതമാനം ഓഫർ ഉള്ള കൂപ്പണുകൾ അവരുടെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ വന്നപ്പോൾ എൻ്റെ മനസ്സിനെ അത് ആകർഷിച്ചു അപ്പോൾ ഞങ്ങൾ ഒരു എട്ട് പേർക്ക് ഭക്ഷണം ഓഡർ ചെയ്യാൻ വേണ്ടി പോകുകയാണ് അങ്ങനെയിരിക്കേ ഈ എൺപത് ശതമാനം ഓഫറുള്ളതല്ലേ ഞങ്ങളെടുക്കണ്ടേ അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഐഡിയ തോന്നിയത് അത് പുതിയതായി ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ആ ഓഫറുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു അഞ്ചു പേർക്ക് അതിൻ്റെ പുതുതായിട്ട് ജോയിൻ ചെയ്യാനുള്ള ഇതുണ്ട് കാരണം അവരിതുവരെയായിട്ടും ആ ആപ്പ് ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ഉപയോഗിക്കാതിരുന്ന ആ ആപ്പ് അവർ ഡൗൺലോഡ് ചെയ്തിട്ട് അവർ ആ കൂപ്പൺ ഉപയോഗിക്കുകയാണ് അതിൻ്റെ പേര് വെൽക്കം ബാക്ക് ഫിഫ്റ്റി അതു വച്ചിട്ടാണ് അവർ ഓഡറിൽ എന്തെങ്കിലും കിഴിവ് കൂപ്പൺ ലഭ്യമാണോയെന്ന് പരിശോധിച്ചതും അങ്ങനെ ഞങ്ങൾക്ക് കിഴിവ് കിട്ടയതും കിട്ടിയതും